ആ വളർത്തു മൃഗങ്ങളെയൊക്കെ ഇഷ്ട്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ട്ടമാണ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പിനെക്കാളും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നത് ചിലപ്പോൾ വളർത്തു മൃഗങ്ങളായിരിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ഇപ്പം പൂച്ചക്ക് ഒന്നും വലിയ സ്നേഹം ഒന്നും ഉണ്ടാകില്ല പൂച്ച പിന്നെ ചില പൂച്ചകളൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ അത് മരിച്ചു പോയി അത് എന്തോ പറ്റിയിട്ട് പിന്നെ എന്തോ അതായത് വീട്ടിൻ്റെ അടുത്തുള്ള ആരോ എലി വിഷം എലിക്ക് വിഷം വെച്ചിട്ട് മീനിലെങ്ങാണ്ട് വിഷം വെച്ച് അപ്പോൾ പൂച്ച തിന്നിട്ട് പിന്നെ മരിച്ചു പോയി അപ്പം ആ അത്രേം സ്നേഹമുള്ള പൂച്ച ഇപ്പോൾ വേറെ ഒന്നുമില്ല വീട്ടിൽ പക്ഷേ പൂച്ചകൾ എപ്പോഴും ഉണ്ടാകും ഒരു പൂച്ച പോയാൽ വേറെ ഒരു പൂച്ച ഉണ്ടാകും പിന്നെ പട്ടിയുണ്ട് ഒരു പൊമറേനിയൻ പട്ടിയാണ് ബെല്ലാന്നാണ് പേര് അത് അടിപൊളിയാണ് എന്നോട് ഇഷ്ടം എന്നോടുള്ള ഇഷ്ട്ടത്തിനെക്കാളും എൻ്റെ അമ്മനോടാണ് ഇഷ്ടം എൻ്റെ അമ്മ എന്നെ നോക്കുന്ന പോലെത്തന്നെ പട്ടിനെയും നോക്കും ഭയങ്കര സ്നേഹമാണ് അമ്മക്ക് മൃഗങ്ങളോടൊക്കെ ഭയങ്കര കാര്യമാണ് അമ്മക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ശരി ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളോടൊക്കെ